ഹലോ ഇത് വായനാട്ടിലുള്ള ഗ്രീൻ ഹിൽസ് പബ്ലിക് സ്ക്കൂൾ അല്ലേ ഞാൻ കോഴിക്കോട് നിന്നായിരുന്നു മാം മാം ഞങ്ങൾ ഇപ്പോൾ കോഴിക്കോട് ആണ് താമസിക്കുന്നത് ഞങ്ങൾ എൻ്റെ ഹസ്ബൻറ്റിന് ട്രാൻസ്ഫർ ആയി ഞങ്ങൾ ഇപ്പോൾ വയനാട്ടിലേക്ക് വരികയാണ് അപ്പോൾ എൻ്റെ മക്കൾക്ക് അവിടെ ഗ്രീൻ ഹിൽസ് പബ്ലിക് സ്കൂളില് എൽ കെ ജിയിലും സെക്കൻഡ് സ്റ്റാൻഡേർഡിലും അഡ്മിഷന് സീറ്റ് അവൈലബിൾ ആണോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു ഓക്കെ മാം അല്ല അല്ല അല്ല എൽ കെ ജി യിലേക്കും സെക്കൻഡ് സ്റ്റാൻഡേർഡിലേക്കും ഓക്കെ മാം ഇതിന് ഫീസൊക്കെ എത്രയാണ് വരുന്നത് ആണോ ഓക്കെ

ഓക്കെ ഓക്കെ മാം അപ്പം ഇവര് ഇത്രയും നാളും പഠിച്ച പോർഷനിൽ നിന്നുള്ള എക്സാം ആയിരിക്കില്ലേ

ഓക്കെ മാം ഓക്കെ ഓക്കെ അത് ഞങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വരുമ്പോൾ അടച്ചാൽ പോരെ ഓക്കെ മാം ഓക്കെ അ ഓക്കെ മാം ഓക്കെ സ്കൂൾ ബസിനുംകൂടെയുള്ള ഫീസല്ലേ ഇതില് വരുന്നത് ജിഷ്ണു വിഷ്ണു എൻ്റെ പേര് ആര്യാ എന്നാണ് എൻ്റെ ഹസ്ബൻറ്റിൻ്റെ പേര് അമൽ എന്നാണ് ഇല്ല ഞാൻ ഹൗസ് വൈഫ് ആണ് അത് അവിടെത്തന്നെ ഒരു ഇതില് അറേഞ്ച് ചെയ്തിട്ടുണ്ട് മാം ഞങ്ങള് ഇവിടെ റെൻറ്റിനൊരു ഹൗസ് എടുത്തിട്ടുണ്ട് ഓക്കെ മാം അതെന്തായാലും അഡ്മിഷന് വരുമ്പോൾ തന്നെ അറിയിക്കാം ഓക്കെ മാം ഓക്കെ മാം ഓക്കെ താങ്ക്യൂ